വയനാട് ജില്ലയിലെ പ്രധാന സാംസ്കാരിക ഭാഷ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മലയാളമാണ് മലയാളം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ എന്താണ് പറയുക ഒരു അച്ചടി ഭാഷ പോലെയാണ് മലയാളം പറയുന്നത് അതായത് ശരിക്കുള്ള ഭാഷ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മലയാളം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കോട്ടയംകാർക്കാണ് അതുകഴിഞ്ഞിട്ട് നമ്മുടെയാണ് മലയാളം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്യൂർ ആയിട്ട് പറയുന്ന ഭാഷ ബാക്കിയുള്ള സ ജില്ലകളിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ ഒരു ശൈലിയിലാണ് പറയുക അപ്പം മെയിൻ ആയിട്ടുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കരിന്തണ്ടൻ്റെ കഥ എന്നൊക്കെ പറയും അതായത് നമ്മുടെ വയനാട്ടിലെ ഒരു ചുരമാണ് താമരശ്ശേരി ചുരം അപ്പോൾ ആ ചുരം കണ്ടുപിടിച്ചത് കരിന്തണ്ടനാണ് അപ്പോൾ കരിന്തണ്ടൻ പണ്ട് കാട്ടിലൂടെ ഇങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വഴി പറഞ്ഞു കൊടുത്തത് കരിന്തണ്ടനാണ് എന്നിട്ട് കരിന്ത കരിന്തണ്ടനെ കൊന്നു കളയുകയും ചെയ്തായിരുന്നു അപ്പോൾ കരിന്തണ്ടൻ്റെ ഒരു സ്മാരകത്തിൻ്റെ ഇതിലായിട്ട് അവിടെ ഒരു ആചാരമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതായത് കരിന്തണ്ടൻ്റെ ഒരു പ്രതിമ വെച്ചിട്ട് അവർ പൂജിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഉത്സവങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇപ്പം വള്ളിയൂർക്കാവ് ഉത്സവം ബത്തേരി നടക്കുന്ന അവിടുത്തെ ഉത്സവം പിന്നെ ഈദുൽ ഫിത്തർ തിറയാട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്